ഹലോ സാർ ഗുഡ് മോർണിംഗ് എനിക്ക് അങ്ങനെ ഈ ഹോസ്പിറ്റലില് നിന്നും മെയില് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോബ് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുക എന്റെ ഇതിൽ ഇപ്പം പ്രശ്നം എന്ന് വച്ചാൽ പാസ്പോര്ട്ടിന് ഞാന് ഭയങ്കര ആഗ്രഹിച്ചു എടുത്ത ജോലി തന്നെയാണ് ജോലിയാണ് പക്ഷെ എന്റെ പാസ്പോര്ട്ടിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം പാസ്പോര്ട്ട് കുറേ കാലമായി എടുത്തിട്ട് അത് പുതുക്കിയിട്ടില്ല അപ്പോൾ പുതുക്കാന് കുറച്ചു ടൈം എടുക്കും അതിന് ടൈമ് തരുമോ എന്നൊക്കെ ഒന്ന് ചോദിക്കാന് വേണ്ടിയിട്ടായിരുന്നു സാറെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാന് ഭയങ്കരമായിട്ട് മീന്സ് എന്റെ ഡ്രീം ജോബ് ആണ് അത് അത്രയും ഞാന് ആഗ്രഹിച്ചുള്ള ഒരു ജോബ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കളയാന് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ജോബ് എനിക്ക് വേണം സര് പക്ഷെ കുറച്ചു ടൈമ് തന്നാൽ സുഖമായിരുന്നു എന്റെ ഒരു

പിന്നീടും അത് പുതുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല മീന്സ് അയ്മുക്ക് വലുതായിട്ട് ശ്രദ്ധിച്ചുണ്ടായിരുന്നില്ല അതിപ്പം പെട്ടന്ന് ഇങ്ങനെ സംഭവം വന്നപ്പോഴാണ് അയ്യോ പാസ്പോര്ട്ട് പുതുക്കിയില്ലല്ലോ എന്നുള്ള ഒരു ഓര്മ്മ വന്നത് സര് അതിന് കുറച്ചു ടൈമ് തന്നാല് നന്നായിരുന്നു സര് താങ്ക് യു